ആ ഞാൻ സാംസങ്ങിൻ്റെ ഇരുപത്തി അഞ്ച് വാട്ടിൻ്റെ ഒരു ചാർജർ വാങ്ങി മൊബൈൽ ചാർജർ സീ ടൈപ്പിൻ്റെ കാണാൻ നല്ല ഭംഗിയായിരുന്നു വില തൊണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു ആറുമാസത്തെ വാറന്റിയൊക്കെ പറയുന്നുണ്ട് കമ്പനി അത് വാങ്ങി പെട്ടെന്ന് ചാർജ് ആകും എന്നാണ് കമ്പനി പറഞ്ഞത് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഫാസ്റ്റ് ചാർജ്ജിങ്ങ് ആയിരുന്നു പക്ഷേ ആ ഒരാഴ്ച കഴിഞ്ഞ് ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം വരെ പെട്ടെന്ന് ഫോൺ ചാർജ് ആകും അതിനുശേഷമുള്ള പതിനഞ്ച് ശതമാനം ചാർജ്ജാകാൻ നല്ല സമയം എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ചാർജർ തന്നെയാണ് നല്ലത് ഇപ്പോൾ ഫാസ്റ്റ് ചാർജർ ആവശ്യമില്ലല്ലോ എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ സ്പീഡ് ആയിട്ട് ചാർജ് കയറിയിട്ട് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം നല്ല സ്ലോവിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചാർജർ അല്ലേ നമുക്ക് നല്ലത് കാരണം നമ്മൾ ഇപ്പോൾ ഈ എണ്ണൂറും തൊള്ളായിരവും കൊടുത്തിട്ട് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഒരു കാര്യം പിന്നെ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവുക ചാർജർ ചാർജർ പെട്ടെന്ന് ഹീറ്റാകാൻ പാടില്ലല്ലോ ആ ചാർജർ ഹീറ്റായിട്ട് അഡാപ്റ്ററിൻ്റെ ആ ഭാഗം പൊന്തി വരിക പൊള്ളയായി നിൽക്കുന്നത് പോലെ അപ്പോൾ നമുക്ക് എനിക്കൊരു പേടി അത് പൊട്ടിത്തെറിച്ചു പോകുമോ ചാർജർ പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ ഫോണിന് വല്ലതും സംഭവിക്കുമോ എന്നാണ് എനിക്ക് ടെൻഷനാവുക അപ്പോൾ ചാർജ് സ്പീഡും ഇല്ല പെട്ടെന്ന് ചൂടും ആവുക അഡാപ്റ്റർ കേബിളിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശം കേബിൾ ഇട്ട് എടുക്കുമ്പോഴേ കുറച്ച് എടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ വയർ പൊട്ടുന്നത് പോലെ ആ സൈഡ് പൊട്ടിപ്പോകുന്ന പോലെ ഒരു ഫീല് മൊത്തത്തിൽ ഇത്രയും വിലയും കൊടുത്ത് ഒരു സാധനം വാങ്ങിയിട്ട് ഞാനാകെ പറ്റിക്കപ്പെട്ട പോലെയാണ് ആറുമാസത്തെ വാറന്റിയുണ്ട് ഇപ്പോൾ എന്താ പറയുക അത് കടയിൽ കൊടുത്തിട്ട് മാറ്റാൻ പറ്റുമോ അതിനുള്ള തീരുമാനം എന്തെങ്കിലും നോക്കട്ടെ ഇനി എന്തായാലും ഞാൻ ഈ ചാർജർ വാങ്ങാൻ പോകുന്നില്ല അത് കൊടുത്തിട്ട് ഇവരുടേന്ന് വേറെ ഇതിൻ്റെ ഈ കമ്പനിയിൽ നിന്നു തന്നെ വേറെ ഉണ്ടോയെന്ന് നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ വേറെ കമ്പനിയുടെ ചാർജർ വാങ്ങാനാണ് പ്ലാൻ